പാമ്പ് കടി പ്രാണികളുടെ കുത്തലുകൾ പോലെയുള്ള മൃഗങ്ങളുടെ കടയിൽ നിന്ന് സുരക്ഷിതമായിരിക്കാനുള്ള മാർഗ്ഗമെന്നു പറഞ്ഞാൽ അവയെ ഉപദ്രവിക്കാതിരിക്കുക അവയെ എന്നുള്ളതാണ് ഏക മാർഗ്ഗം പിന്നെ എന്ന പാമ്പിനൊന്നും ചവിട്ടാതിരിക്കുക പ്രാണികളെ ഉപദ്രവിക്കാതിരിക്കുക തുടങ്ങിയ മാർഗ്ഗങ്ങളൊക്കെയാണ് ഇതിന് പറ്റിയതായിട്ടുള്ള ഒരു മാർഗ്ഗമെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താണ് അവയ്ക്കു വേണ്ട മുൻകരുതലുകൾ നമ്മൾ കൈ കരുതുക സാധാരണ ഗതിയിൽ പാമ്പിനെ ഒക്കെ ചവിട്ടിയാലാണ് അതും തിരിച്ച് ഉപദ്രവിക്കുന്നത് അവയെ ഉപദ്രവിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അവ തിരിച്ചുപദ്രവിക്കത്തില്ല അപ്പം അവയെ ഉപദ്രവിക്കാതെ മുൻപോട്ടു പോകുക